ഹലോ മത്തായി മത്തായി സാറാണോ ആ മത്തായി സാറേ ഞാന് ഒരു ഞാനിങ്ങനെ ഈ പലതും അന്വേഷിച്ചിട്ടാണ് സാറിൻ്റെ നമ്പറെനിക്ക് കിട്ടാന് കിട്ടിയത് എനിക്ക് അത്യാവശ്യമായിട്ട് അത്യാവശ്യമായിട്ടൊരു പത്ത് സെൻ്റ് സ്ഥലം വേണമായിരുന്നു കാരണം ഞാനിപ്പോള് വാടകയ്ക്ക് ഇപ്പോള് ഒരു മൂന്നു നാല് വര്ഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അപ്പോള് ഒരു പത്ത് സെന്റ് സ്ഥലം നമ്മുടെ ടൗണില് സ്കൂളും ഒക്കെ സ്കൂളിനോട് അടുത്ത് പള്ളിയുടെ അടുത്ത് അടുത്ത് ഏ പറ്റിയ സ്ഥലമുണ്ടോയെന്ന് സാറെ വെള്ളത്തിന് സാറെ മത്തായി സാറെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകരുത് കേട്ടോ വെള്ളം സാറെ ഇത് ആലപ്പുഴ ടൗണിന് അടുത്തൊക്കെ ഏകദേശമൊരു സെൻ്റിന് ഒരു എത്ര ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടുമോ സാറെ

ഏതു പള്ളിയാ സാറെ പള്ളി ഇടവക ഏതാണ് പള്ളി ഏതാ സാറെ പള്ളി ഓ ഓ ഓ ഓക്കെ ഓക്കെ സാറിനെ എപ്പോള് വന്ന് എപ്പോള് വന്ന് എനിക്ക് കാണാന് പറ്റും അഡ്വാന്സ് വല്ലതും കൊടുക്കേണ്ടി വരുമോ അഡ്വാന്സ് എവിടെ നിന്നാണ് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ആ അതുകൊണ്ടാണ് എനിക്കറിയാം മനസ്സിലായി അതുകൊണ്ടാണല്ലോ മത്തായി സാറിനെ ഞാന് വിളിച്ചത് പിന്നൊരു കാര്യം ഇത് ഇത് വീട് സാറിന് വല്ല വേറെ ഈ വീട് കണ്സ്ട്രക്ട് ചെയ്യുന്ന ആള്ക്കാരെ വല്ലതും പരിചയമുണ്ടോ

അടുത്താഴ്ച അടുത്താഴ്ച ഞാൻ വൈകിട്ട് ഞാൻ വിളിക്കാം സാറിനെ പിന്നെ ഇതെ ഇത് തന്ന് പൈസ അഡ്വാൻസ് തന്ന് എത്ര ദിവസത്തിനുള്ളിൽ എഴുതേണ്ടിവരും അല്ല ഇന് കേസ് നമുക്കിപ്പോള് ഇതിപ്പോള് നമ്മളൊരെണ്ണം അല്ലല്ലോ കാണുന്നത് പലതും കാണുമ്പോളെ നമുക്ക് ഇഷ്ടപ്പെട്ടത് കാണാന് കണ്ടു എടുക്കാനുള്ളൊരു ഓപ്ഷന് ഉണ്ടല്ലോ കാരണം എനിക്ക് ഫൈനാന്സ് കൂടെ ബാക്കി ഫൈനാന്സ് കൂടെ ശരിയാക്കാനുണ്ട് അപ്പോള് അതിന്റെ ഒരു താമസമുണ്ട് ഒരു താമസം ഓ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോള് ശരി നമുക്ക് അടുത്താഴ്ച നമുക്ക് കാണാം കേട്ടോ താങ്ക് യു ഓക്കെ ഓക്കെ ഓക്കെ